വരൂ നമ്മളിവിടെ ഫുള്ള് ഓർഗാനിക് എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഫുൾ നാച്ചുറലായിട്ടുള്ള ഒരെണ്ണയാണ് ആ പറയൂ ആ ഓക്കെ എന്നാൽ

ഇല്ല നമുക്കിതിപ്പോൾ ഒരു ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ വെച്ചാലും കേടുവരില്ല അത്രയും നമ്മൾ ശുദ്ധമായ എണ്ണയാണ് ഇത് നമ്മൾ നമ്മൾ ഇത് സ്വന്തം ഓരോ സ്ഥലങ്ങളിലെ തെങ്ങ് തോ തെങ്ങും തോട്ടങ്ങൾ നമ്മൾ തന്നെ പോയി നോക്കി അവിടെ നിന്ന് ഡയറക്ട് നമ്മൾ തെങ്ങയൊക്കെ പറിച്ച് നമ്മളിതിനെ മില്ലിൽ കൊണ്ടുവന്ന് ഉണക്കി നമ്മൾ തന്നെ ആട്ടുന്ന എണ്ണയാണ് നമ്മളിവിടെ തന്നെ ആട്ടുന്ന എണ്ണയാണ് ഇതിൽ യാതൊരു വിധ കെമിയ്ക്കൽസും യൂസ് ചെയ്യുന്നില്ല ഫുൾ നാച്ചുറലാണ് ഇത് കേടുവരികയേയില്ല ഇത് രണ്ടും മൂന്നു കൊല്ലം കേടുവരാതെയിരിക്കും ആ ഉണ്ട് ഇവിടെ അല്ലാതെ എല്ലാ തരത്തിലുള്ള എണ്ണയും അവൈലബിളാണ് ഇല്ല ഒരു കുഴപ്പവുമില്ല നമുക്ക് ഇപ്പോൾ അത് തേയ്ക്കാനും തലയിൽ തേയ്ക്കാനും കാച്ചിയിട്ട് വേണമെങ്കിൽ തേയ്ക്കാം ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ളൈ ചെയ്യാം ഇല്ലെങ്കിൽ വല്ല ചെമ്പരത്തി താളിയിലൊക്കെ നമുക്ക് ഈ എണ്ണ ഒഴിച്ച് അപ്ളൈ ചെയ്യാം ഇല്ലെങ്കിൽ അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ചില എണ്ണകളിലൊക്കെ ഇത് മിക്സ് ചെയ്തിട്ടും നമുക്ക് തേക്കാം നമ്മുടെ ഈ എണ്ണ ഉപയോഗിക്കുന്നതു കൊണ്ട് നമുക്ക് യാതൊരു വിധ ഹെൽത്ത് പ്രോബ്ലംസും വരില്ല മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയുള്ള ഒന്നും തന്നെ വരില്ല ആ പച്ച തെങ്ങിൽ നിന്ന് ഇറക്കുന്നതിന് നമുക്ക് ഒരു ലിറ്ററിന് നൂറ്റി അൻപത്തഞ്ച് രൂപ വരുന്നുണ്ട് നിങ്ങൾ ബൾക്കായി എടുക്കുകയാണെങ്കിൽ അതെ നൂറ് രൂപയാണ് നിങ്ങൾ ബൾക്കായി എടുക്കുകയാണെങ്കിൽ നമ്മൾ കമ്മിയാക്കി തരും ആഹ് ഒരു ലിറ്റർ മതിയോ

മ് മ് ഓക്കെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് ആരായാലും കുഴപ്പമില്ല ഇപ്പോൾ കുട്ടികൾക്ക് നമുക്ക് തലയിലൊക്കെ തേച്ച് കൊടുക്കാം ഓ കുട്ടികൾക്ക് കാച്ചി കാച്ചിയിട്ടും തലയിൽ തേച്ചു കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ടും തേച്ചു കൊടുക്കാം പിന്നെ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസെന്തെങ്കിലും തുമ്മലൊക്കെ ഉണ്ട് പറഞ്ഞാൽ എണ്ണ കാച്ചിയിട്ട് തേക്കുകയാണെങ്കിൽ തേച്ചു കുളിപ്പിക്കുമ്പോൾ നല്ലതായിരിക്കും അതുപോലെ ഫുഡ് ഐറ്റംസിലെന്തൊക്കെ നമുക്ക് കുട്ടികളുടെ ഫുഡ് ഐറ്റംസിലും വെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോളൊന്നും കുഴപ്പമൊന്നും വരത്തില്ല മ്

ഇല്ല അത് ഇല്ല നമുക്കിത് ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കാം നമുക്ക് കടുക് വറുക്കാനും അതുപോലെ പൊരിക്കാനെടുക്കാനൊക്കെ ഇതു ഉപയോഗിക്കാം ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊക്കെ പണ്ടത്തെ ആചാരമാണ് കുട്ടികൾക്കു കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ഡോക്റ്റർമാർ അങ്ങനെ നല്ലതല്ലെന്ന് പറയും പക്ഷേ ഇത് കൊടുക്കുന്നതു കൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൂറ് രൂപാ മറ്റേ പച്ച തേങ്ങ നൂറ്റൻപത്തഞ്ച് രൂപ ആ അപ്പം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാം ആ ശരി ആ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല

ആ ശരി ഇപ്പം ഇത് കൊണ്ടു പൊക്കോളൂ